ആ ഞാൻ ബാംഗ്ളൂരിൽ നിന്നാണ് വിളിക്കുന്നത് ആ ഞാൻ അവിടുത്തെ ഫേമസ് ഫെസ്റ്റിവെൽസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് ആയിരുന്നു

ആ ഇത് ഇപ്പം ഏതൊക്കെ ടൈമിലാന്ന് അറീല്ലല്ലോ

ആ ഓക്കെ

ആ അറിയാം അറിയാം ആ ഓക്കെ

ആ ഇനി എല്ലാം നെക്സ്റ്റ് ഇയർ ആണല്ലേ ആ ആ ഓണം ഒന്നും ഞാൻ അങ്ങനെ ആഘോഷിച്ചിട്ട് ഇല്ല അപ്പം ഓണം അഘോഷിക്കണമെന്ന് ഒര് ഇത് ഉണ്ട്

ആ എന്നാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് വിട്ടേക്കാം മ്